എൻ്റെ വീട്ടിൽ ഞാനും ഹസ്ബൻ്റും കൊച്ചും മാത്രമേ ഉള്ളു ആൾക്ക് ഇൻ്റോർ പ്ലാൻ്റ് എന്നു പറഞ്ഞാൽ ഹസ്ബൻ്റിന് ഇൻ്റോർ പ്ലാൻ്റ് എന്നു പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ആള് എവിടെ നിന്നാണെങ്കിലും അതിൻ്റെ കളക്ഷൻസ് കുറേ കളക്ഷൻസ് കൊണ്ടു വച്ചിട്ടുണ്ട് അത് അത് മെയിൻ്റൈൻ ചെയ്യുന്നതും അതിനു വളമിടുന്നതും അതിനൊത്തിരി വെള്ളമൊന്നും പാടില്ല അപ്പോൾ അതിനെ നോക്കുന്നതൊക്കെ ആളാണ് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു പൂന്തോട്ടത്തിലെ ഇൻ്റോർ പ്ലാൻ്റ്സ് അത് വളരെ വളരെ നീറ്റായി വളരെ മനോഹരമായി കൊണ്ടു പോകുവാൻ ആൾക്ക് സാധിക്കുന്നുണ്ട് എനിക്ക് കുറച്ച് ഫ്ലവർ ഉള്ള പൂക്കളോടാണ് താല്പര്യമെങ്കിലും ആൾക്ക് ഇൻ്റോർ പ്ലാൻ്റ് ആണിഷ്ടം വളരെ നല്ല രീതിയിൽ ആള് കൊണ്ടുപോവുന്നുണ്ട്